അതെല്ലോ ആ പേര് ഒന്ന് പേരൊന്ന് പറയാമോ ആതെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ഉവ്വ

ആ നമ്മൾ നമ്മൾ മറ്റേ ക്യാപ്പ് ഇട്ട പല്ലിനാണോ ഇപ്പോൾ വേദന തോന്നുന്നത് അല്ല ആ ഭാഗത്ത്ന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് ചേർന്നുള്ള മോണയിലാണോ അതോ അടുത്ത പല്ലിനോട് ചേർന്നാണോ

മോണയിൽ ആണല്ലേ ആ ഓക്കെ ആ ആ ആഹ് ആഹ് ആ നമ്മളെ അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ഈ പല്ലിൻ്റെ ക്യാപ്പ് ഇട്ടിരിക്കുന്ന പല്ലിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ റൂട്ട് കനാൽ ചെയ്തല്ലോ ആ റൂട്ട് കനാല് ചെയ്തിരിക്കുന്ന പല്ലിനകത്തേക്ക് ഇങ്ങനെ പല്ല് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് അല്ലേ അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തുന്നുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടു വന്നിട്ടാണ് റൂട്ട് കനാല് ചെയ്തത് നമ്മൾ അങ്ങനെയാണ് ചെയ്യിച്ചോണ്ടിരിക്കുന്നത് അത് വൺ ടൈമായിട്ട് ചെയ്തുകൊണ്ടാണ് സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് തവണ കൊണ്ടൊക്കെയാണ് റൂട്ട് കനാല് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയിൽ ആളെ കൊണ്ടുവന്നിട്ട് ഒറ്റ തവണയായിട്ടാണ് റൂട്ട് കനാല് ചെയ്യാൻ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞതു കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പല്ലിൻ്റെ ഒരു എക്സ്റേ എടുത്തു നോക്കണം എക്സ്റേ എടുത്തു നോക്കിയിട്ട് ഇപ്പോൾ ഇത്ര മോണ വീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് നമുക്ക് നമുക്ക് നമുക്ക് സൗകര്യമുണ്ട് നമുക്ക് എക്സ്റേ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് ഒരു കാര്യം ചെയ്താൽ മതി തിങ്കളാഴ്ച നമുക്ക് അവധിയാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ

പറഞ്ഞോളൂ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച നമുക്ക് അവധിയാണ് അതിന് കുഴപ്പമില്ല ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവില ചൊവ്വാഴ്ച രാവിലത്തെ നമ്മുടെ ഒ പി കാർഡൊണ്ടല്ലോ ആ ഓ പി കാർഡിൽ ഒരു രജിസ്ട്രേഷൻ നമ്പറൊണ്ട് ആ രജിസ്ട്രേഷൻ നമ്പറ് വെച്ചിട്ട് ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഇങ്ങ് പോന്നാൽ മതി നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ഒരു എക്സ്റേ എടുത്തു നോക്കിയിട്ട് അതിനകത്ത് ഇൻഫെക്ഷനൊണ്ടെങ്കിൽ അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് അതിനകത്ത് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇനി റൂട്ട് കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ക്യാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തേലും പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് പരിഹാരം ഉണ്ട് കുഴപ്പമില്ല പേടിക്കുക ഒന്നും വേണ്ട ഇനി ഇപ്പോൾ അടുത്ത പല്ലിലേക്കോ അല്ലെങ്കിൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെലും കാര്യമാണെങ്കിൽ

അതിന് അതിന് പെയിൻ കില്ലറൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം അടുത്ത ദിവസം ഒന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടുമോ ഇല്ലെങ്കിൽ ഞാൻ വാട്സാപിൽ വാട്സാപിൽ ആ ടാബ്ലറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അവിടുന്ന് ലോക്കലായിട്ടുള്ള ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുകയോ ചെയ്താൽ മതി പെയിൻ കില്ലറിൻ്റെ അതെ തൽക്കാലം തൽക്കാലം കുഴപ്പമില്ല തൽക്കാലം ആ ഗുളിക മേടിച്ചിട്ട് കഴിക്ക് അത് അതിന് അതിനു ശേഷം അതിനു ശേഷം തിങ്കളാഴ്ച അവധിയാണ് ചൊവ്വാഴ്ച രാവിലെ വന്നാൽ നമുക്ക് എക്സ്റേ എടുത്തു നോക്കിയിട്ട് ബാക്കി അതിൻ്റെ ട്രീറ്റ്മെൻ്റെ എന്തെക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ഇത് ക്യാപ്പ് ചെയ്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ റൂട്ട് കനാല് ചെയ്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ലാതെ പരിഹരിക്കാം ഇത് ഇപ്പം അടുത്ത പല്ലിന് വേറെ മോണക്കോ എന്തെങ്കിലും വിഷയമാണെങ്കിൽ അതെന്താണെന്ന് നോക്കിയിട്ട് അതിനുള്ള ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാം കേട്ടോ ഹ് അത് കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാം കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ